എൻ്റെ കേരളനാട്ടിൽ മലയാള ഭാഷയാണെങ്കിൽപ്പോലും മറ്റ് പല പ്രദേശങ്ങളിലും മറ്റ് അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം ആൾക്കാർ കേരള സംസ്ഥാനത്ത് ജീവിക്കുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് ദിവസങ്ങളേയുള്ള അതാതു ദിവസത്തെ ന്യൂസുകൾ അറിയണമെങ്കിൽ നമ്മുടെ മലയാളഭാഷ അവർക്ക് വായിക്കാൻ പ്രയാസമാണ് അക്കാരണത്താൽ അവരുടേതായ സംസ്ഥാനങ്ങളിലെ പ്രത്യേകിച്ച് ഹിന്ദി ഭാഷ ഇംഗ്ലീഷ് ഭാഷ തമിഴ് ഭാഷ എന്നീ പത്രങ്ങൾ എൻ്റെ സംസ്ഥാനത്ത് ഉണ്ട് കൂടുതലും ഇംഗ്ലീഷ് ഭാഷാപത്രങ്ങളായ ദ ഹിന്ദൂ മറ്റ് ഹിന്ദി ഭാഷാ പത്രങ്ങൾ അയൽസംസ്ഥാനമായ അയൽ സംസ്ഥാനങ്ങളുടെ കന്നഡ തമിഴ് എന്നീ സംസ്ഥാനങ്ങളുടെ പത്രങ്ങളും എൻ്റെ സംസ്ഥാനത്തുണ്ട് കാരണം നമുക്കറിയാം ഇന്ന് പല സംസ്ഥാനങ്ങളിലും ആ മറ്റ് പല സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന ആൾക്കാർ താമസിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് അവരുടേതായ

നമ്മൾ കേരളീയർക്ക് അവരുടെ പ്രദേശത്തെപ്പറ്റി കൂടുതൽ അറിവില്ല അക്കാരണത്താൽ അവരുടെ പ്രദേശത്തെപ്പറ്റി നമുക്ക് കൂടുതൽ പറഞ്ഞുകൊടുക്കാനോ അല്ലെങ്കിൽ ഭാഷാപരമായിട്ട് നമുക്ക് ആ ഒരു നൈപുണ്യം ഇല്ലെങ്കിൽ ആ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാർക്ക് സംസാ അവരുടേതായ കാര്യങ്ങളറിയണമെങ്കിൽ നമുക്ക് അവരുടെ ഭാഷയിലുള്ള പത്രങ്ങൾ അവരെ സ്വാധീനിക്കുന്നുണ്ട് അവരെ സഹായിക്കുന്നുണ്ട് അതുപോലെ നമ്മളുടെ സംസ്ഥാനത്ത് നിന്നും മറ്റുള്ള പ്രദേശങ്ങൾലേക്ക് പോകുകയാണെങ്കിൽ അവർക്കും കാര്യങ്ങളറിയണമെങ്കിൽ അവരുടേതായിട്ടുള്ള ഒരു പത്രം ആവശ്യമാണ് മറ്റു സംസ്ഥാനങ്ങളിൽനിന്ന് വരുന്ന ആൾക്കാർക്ക് അവരുടെ വാർത്തകൾ അറിയുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു സമാധാനം പറഞ്ഞറിയിക്കാൻ കഴിയില്ല അത്രത്തോളം അവർ ഇഷ്ടപ്പെടുന്നുണ്ട് അവരുടെ സംസ്ഥാനത്തെ എന്നാൽ പല പ്രയാസങ്ങൾ നേരിട്ട് കൊണ്ടാണവരോരോ പ്രദേശത്തും ജീവിക്കുന്നത് അപ്പോൾ അവരുടേതായിട്ടുള്ള സംസ്ഥാനങ്ങളിലെ കാര്യങ്ങൾ അറിയുമ്പോൾ അത് ഈ പത്രത്തിലൂടെ മാത്രമേ അവർക്ക് അറിവ് കിട്ടുകയുള്ളൂ അപ്പോൾ അവർക്കുണ്ടാകുന്നൊരു സന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഇന്നത്തെ കാലഘട്ടം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം വാർത്തകളിലൂടെയാണ് നമ്മൾ പല കാര്യങ്ങളും ഇന്ന് മനുഷ്യൻ അറിയുന്നത് സാങ്കേദ്യവിദ്യ മാത്രം ആശ്രയിച്ചാൽ പോരാ മനുഷ്യനിന്ന് ഇത് പോലെയുള്ള പത്രങ്ങളിലൂടെ നമ്മൾ അവരുടെ പിക്ച പടങ്ങളിലൂടെയൊക്കെ ഒത്തിരി കാര്യങ്ങൾ ഇന്ന് നമ്മൾ അറിവിലൂടെ വരുന്നുണ്ട് പത്രങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അതിനുവേണ്ടിയുള്ള സാങ്കേതിക വിദ്യയെല്ലാം ഇന്ന് എല്ലാ സംസ്ഥാനങ്ങൾക്കുമുണ്ട് പല പല സംസ്ഥാനങ്ങളിൽന്നും വരുന്ന ആൾക്കാർക്ക് ഇന്ന് നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് കാണാൻ കഴിയുന്നതാണ് അപ്പോൾ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണവർ ജോലികൾക്കായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് വരുന്നത് അപ്പോൾ അവരുടേതായ പ്രദേശത്തെ പറ്റി അവർക്ക് ഒത്തിരി ഉൽക്കണ്ഠയോടുകൂടിയാണ് അവർ നമ്മുടെ പ്രദേശത്ത് ജോലി ചെയ്യുന്നത് അപ്പോൾ അവർക്കുള്ള മനസ്സിനൊരു സന്തോഷം കൊടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഒരു മെച്ചപ്പെടണമെങ്കിൽ അവർക്ക് ഈ ഡെയിലി ഉള്ള അന്നന്ന് ഉള്ള കാര്യങ്ങളറിയണമെങ്കിൽ അവർ പത്രത്തെയാണ് സഹായം തേടുന്നത് അതുപോലെ പത്രങ്ങളിലൂടെ വരുമ്പോൾ നമുക്കറിയാം പത്രങ്ങൾ വായിക്കുന്നതിലൂടെ ഇന്നത്തെ കാലമെന്ന് പറയുമ്പോൾ വായന കുറവാണ് അപ്പോൾ വായനകളിലൂടെ ഇന്ന് അവർക്ക് കൂടുതൽ കൂടുതൽ അവർക്ക് ജീവിതസാഹചര്യങ്ങൾ മെച്ചപ്പെടുത്താനേ കൊണ്ട് കഴിയും നമുക്ക് ഫോസ് സാങ്കേതിക വിദ്യയിലൂടെ ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ എന്നാൽ പത്രങ്ങൾ വായിക്കുന്നതു പോലെ നമുക്ക് ധാരാളം കാര്യങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കയറി വരൂ ഇന്നത്തെ കാലത്ത് നമ്മുടെ സംസ്ഥാനത്ത് അന്യ സംസ്ഥാനങ്ങൾ ഒത്തിരി പേർ നമ്മുടെ രാജ്യത്ത് നമ്മളെ സംസ്ഥാനത്ത് ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള സാങ്കേദ്യവിദ്യകൾ ഉണ്ടെങ്കിൽപ്പോലും അവരുടെ സംസ്ഥാനത്ത് നിന്നും വരുന്ന അവരുടെ പത്രങ്ങൾ കാണുമ്പോൾ അവരുടെ മനസ്സിൽ വളരെയധികം സന്തോഷം ലഭിക്കും അപ്പോൾ ഏത് സംസ്ഥാനത്തായിരുന്നാലും അവരുടേതായിട്ടുള്ളൊരു പത്രം ഉണ്ടെങ്കിൽ അത് എറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്